എൻ്റെ ബൈക്കിലെപ്പോഴും കാണുന്നത് സ്ക്രൂ ഡ്രൈവറും ഒരു സ്പാനറും അതു പോലെ തന്നെ ബ്രേക്കിൻ്റെ പ്രശ്നങ്ങൾ മാറ്റുന്നതിനുള്ള ഒന്നു രണ്ടു ലിവറുകളുമാണ് യാത്രക്കിടയിലെപ്പോഴെങ്കിലും ബൈക്കിന് തകരാർ സംഭവിക്കുന്ന ഘട്ടങ്ങളുണ്ടായാൽ ഇവ കൊണ്ട് ബേസിക്കായിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള മെയിൻറ്റനൻസ് നടത്താൻ നമുക്ക് സാധിക്കും എനിക്ക് യാത്രക്കിടയിൽ വന്നിട്ടുള്ള ഒരേ ഒരു അപകടം ബാറ്ററി വീക്കായി പോകുന്നതായിരുന്നു ബാറ്ററി വീക്കായി പോകുന്നതു കൊണ്ട് പലപ്പോഴും വണ്ടി സെൽഫ് സ്റ്റാർട്ട്സ് സ്വിച്ച് ഉപയോഗിച്ചു പ്രവർത്തിപ്പിക്കാൻ സാധിക്കാതെ വരികയും വഴിയിൽ തന്നെ കിടന്നു പോകുകയും ചെയ്തിട്ടുണ്ട് വണ്ടി ന്യൂട്രൽ ഗിയറിൽ അൽപ്പം മുന്നോട്ട് ഓടിച്ച് ഇറക്കമുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ ആ വേഗതയിൽ വണ്ടി സ് കറങ്ങി തുടങ്ങുമ്പോൾ ഗിയറിലേക്ക് പെട്ടെന്നു മാറ്റി സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമുണ്ടായിട്ടില്ല പിന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ഗ്രാമപ്രദേശമാണെങ്കിൽ പോലും ഓരോ രണ്ടോ മൂന്നോ കിലോമീറ്ററിനുള്ളിൽ മെക്കാനിക്കിൻ്റെ സൗകര്യം ഉള്ളതു കൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല ദൂര യാത്രകളിലാണെങ്കിൽ പോലും പലപ്പോഴും യാത്രയ്ക്കു മുൻപു തന്നെ ഗൂഗിൾ മാപ്പിൻ്റെയോ അല്ലെങ്കിൽ മറ്റ് സോഷ്യൽ മീഡിയയുടെയൊക്കെ സഹായത്തോടു കൂടി എവിടെയൊക്കെ വാഹന സർവ്വീസ് ലഭ്യമാണോ എന്നു നേരത്തെ കണ്ടു വെക്കാറുണ്ട് ഇനി അഥവാ വണ്ടികൾക്കെന്തെങ്കിലും മിസ്സിംഗ് പെട്ടെന്നുണ്ടാകുകയാണെങ്കിൽ സുഹൃത്തുക്കളോട് കൂടിയുള്ള യാത്രയിൽ അവരും സഹായിക്കാറുണ്ട്